നമ്മളുടെ വീടിൻ്റെ അടുത്ത് ഡോക്ടർമാരില്ല ഒരു ആറ് കിലോമീറ്ററകലെ പോയി ഉരികരേന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് അവിടെ ഹോസ്പിറ്റലുണ്ട് ഡോക്റ്ററെ ചെന്ന് വിളിച്ചുകൊണ്ടുവരികയാണ് നമ്മള് സാധാരണ ചെയ്യുന്നത് ഡോക്ട്ര് ആദ്യം മൃഗ പശുവിനൊക്കെ എന്തെങ്കിലും പശു ആട് അതിനൊക്കെ എന്തെങ്കിലും നമ്മള് എല്ലാ മാസവുമൊന്നും വിളിക്കത്തില്ല ഇതിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വല്ലതും ഉണ്ടെങ്കിലെ വിളിക്കത്തുള്ളൂ മാസവും അങ്ങനെ നമ്മള് ഡോക്ടറിനെ വിളിക്കുന്നില്ല പോയി വിളിച്ച് കൊണ്ടുവന്ന് വന്നാൽ ഡോക്ടര് അതിന് വേണ്ടുന്ന കളും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് തരും അത് അത്രയ്ക്ക് അതിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം അത് അങ്ങനെ ആണെങ്കില് നമ്മള് ഡോക്ട്രെ വിളിക്കുവുള്ളൂ ഡോക്ട്രെ വിളിച്ചു വന്നു കഴിയുമ്പോള് ഡോക്ട്ര് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുകയും ചെയ്യുകയും എല്ലാം ചെയ്യും അതുങ്ങളുടെ ആവശ്യങ്ങൾ അതുങ്ങളെ വേണ്ടുന്ന കണക്ക് പരിചരിക്കുന്നുണ്ട് ഡോക്റ്റേഴ്സിൻ്റെ സാന്നിധ്യം നമുക്ക് നല്ല ഒരു ഇതാണ് നല്ല കരുതല് നല്ല കരുതലോടെ നമ്മള് വിളിക്കുമ്പോള് അത്യാവശ്യമെന്നും കണ്ടുകഴിഞ്ഞാല് ഏത് സമയത്താണെങ്കിൽ പോലും മാസത്തിൽ വിളിക്കാറില്ല നമ്മുടെ മൃഗങ്ങൾക്ക് പശുകൾക്ക് ആടുകൾക്കൊക്കെ എന്തെങ്കിലും വന്നുകഴിഞ്ഞാല് അത് നല്ലതു പോലെ നമ്മള് നമ്മള് ചെന്ന് ഡോക്ട്രെ ചെന്ന് കൊണ്ടു വരികയോ ചെലപ്പോള് ഡോക്ട്ര് വരികയോ ചെയ്യും വന്ന് കഴിഞ്ഞാല് ഡോക്ട്രടെ സമീപനമാണെങ്കിലൊ നല്ല രീതിയിലുള്ള പെട്ടെന്ന് അവരെ കൊണ്ടുവരുന്ന ആള്ക്ക് നമുക്ക് പൈസ ചെലവാണ് അതുങ്ങളുടെ മരുന്നിനൊക്കെ പൈസ ചെലവാണ് പിന്നെ ആവശ്യങ്ങള് വരുമ്പോള് അവര് വന്ന് നമ്മടെ കാര്യങ്ങള്ക്ക് വേണ്ടി എല്ലാം ചെയ്ത് തരുന്നുണ്ട് നന്നായിട്ട് വേണ്ട പൊടികളും ഈയിടെ ഞങ്ങളുടെ ഒരു പശുവിനാണെങ്കിൽ ആടിനാണെങ്കിൽ ഇതു പോലെ ബുദ്ധിമുട്ട് കൂടി അതൊന്ന് പ്രസവിച്ച് കഴിഞ്ഞേച്ച് നില്ക്കുകയായിരിന്നു പക്ഷെ അത് പെട്ടെന്നങ്ങ് തളർന്നുപോയി തളർന്ന് ഒരു സൈഡങ്ങ് തളർന്നുപോയി ഡോക്ട്രെ വിളിച്ചുകൊണ്ടു വന്നപ്പോള് ആ ഡോക്ട്ര് വന്ന് പെട്ടെന്ന് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിങ്ങളെയുംകൊണ്ട് നമുക്ക് മനുഷ്യരെ കണക്കല്ലല്ലോ മൃഗങ്ങളല്ലേ ആ ഡോക്ട്രും പെട്ടെന്ന് ഗ്ലൗസൊക്കെ ഇട്ട് അതിനെ പെട്ടെന്ന് എന്തോ അതിൻ്റെ ഗർഭാശയത്തിലോട്ടു മരുന്ന് ഇഞ്ചെസ്റ്റ് ചെയ്തു ഈ അതിൻ്റെ ഗർഭപാത്രം വെളിയിൽ വന്നു ആ ആടിൻ്റെ അങ്ങനെ അത് വന്ന് കഴിഞ്ഞ് ഒന്നും പെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയില് അത് തളർന്ന് താഴെ പോയപ്പോള് ഈ ഡോക്ട്ര് വന്ന് ഇഞ്ചഷൻ ചെയ്ത് മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ ആണ് നമുക്ക് ആ ഡോക്ട്ര് വന്നാണ് ആ ആടിനെ രക്ഷപ്പെടുത്തിയത് നമുക്ക് നല്ല ചിലവൊക്കെ വരുന്നുണ്ട് ചിലവെന്നു വെച്ചു കഴിഞ്ഞാല് ഡോക്ടേഴ്സിന് നല്ല പൈസ കൊടുക്കണം മരുന്നുകൾക്ക് നല്ല പൈസയാണ് എന്നിരുന്നാൽ പോലും വിളിച്ച ആ സ്പോട്ടിൽ വരികയും നമ്മുടെ ആടിൻ്റെ നമ്മളെ മൃഗങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു അതിനുപരി നമ്മളും ആ ഡോക്ടേഴ്സിനോ വിളിക്കുന്നെ വിളിച്ചാല് ഉടനെ വരാനും അവര് കാണിക്കുന്ന ആ സന്മനസ്സും എല്ലാം നമുക്കും ഒരു ഒത്തിരി എന്താണ് പറയുക നേട്ടമായിട്ടുണ്ട് ആ ഡോക്ട്രിനെ വിളിക്കുമ്പോള് വരുന്നത് കൊണ്ടാണ് നമ്മുടെ പശുക്കളുടെ ആടുകളുടെ ഒക്കെ ജീവൻ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞു